വീട്ടുമുറ്റത്തെ ഒക്കെ പൂന്തോട്ടത്തിലേക്കൊക്കെ പക്ഷികളെ ആകർഷിക്കുന്നതിന് വേണ്ടി നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് മെയിനായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം ഇപ്പം നമ്മുടെ വീട്ടിൽ ഒക്കെ വീട്ടു മുറ്റത്തെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ചെടികളും കാര്യങ്ങളും ഒക്കെ വീട്ടിൽ ഉണ്ടെങ്കിൽ ഒരുപാട് ചെറിയ ചെറിയ കിളികൾ ഒക്കെ വന്നിട്ട് തേൻ കുടിക്കാൻ ഒക്കെ വരും അപ്പന്നു വെച്ചിട്ടുണ്ടെങ്കില് കിളികള് തേൻ കുടിക്കാൻ വരുമ്പോൾ പിന്നെ ആ അത് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ആകർഷികമായിട്ട് അത് തോന്നും കാരണം നമ്മുടെ വീട്ടു മുറ്റത്തൊക്കെ കുഞ്ഞി കുഞ്ഞി കിളികള് ഒക്കെ വന്ന് അത് കണ്ടിരിക്കാൻ തന്നെ വലിയൊരു രസം ആണ് പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതിനെ പിന്നെ എൻ്റെ എൻ്റെ അതായത് ഞാൻ ഇപ്പോൾ ഹസ്ബന്റിൻ്റെ വീട്ടിലാ ഉള്ളേ എൻ്റെ വീട്ടിൽ ഒക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കില് പിന്നെ ആദ്യ കാലങ്ങളിലൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ അമ്മ പിന്നെ ധാന്യങ്ങള് അതായത് പഴൊക്കെ ചെറിയ ചെറിയ പീസ് ആക്കിട്ട് പാത്രത്തിൽ വെക്കും അതേപോലെ വെള്ളം ഒക്കെ വെക്കാറുണ്ട് ഈ വേനൽ കാലത്തൊക്കെ ആണ് കൂടുതലും വെക്കാറ് അപ്പാന്ന് വെച്ചിട്ടുണ്ടേ അതിക്കിങ്ങുക്ക് ദാഹിക്കൊക്കെ ചെയ്യോലോ അപ്പം നമ്മ അവർക്ക് നമ്മളോട് പറയാൻ ഒന്നും അറിയില്ലലോ ദാഹിക്കുന്നു എന്നൊക്കെ അപ്പോൾ അങ്ങനെ അങ്ങനെക്കെ വെക്കാറുണ്ട്